വിദ്യാഭ്യാസമാളുകളെ എന്നാ ഉയർച്ചയിലേക്ക് നേടുന്നവർക്ക് ജീവിതം നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി തന്നെ വിദ്യാഭ്യാസംകൊണ്ട് മാത്രം നടക്കൂ അത് എളുപ്പം ഒരു അല്ലെങ്കിൽ നമുക്ക് ജോലിക്ക് പോയാലും കിട്ടും പക്ഷെ എന്നാലും എന്നാ പറയുന്നത് ഒരു ബെറ്റർ ലൈഫ് ബെറ്റർ ഇൻകം ബെറ്റർ ലിവിംഗ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഒരു വിദ്യാഭ്യാസം അല്ലെ ഒരു വരുമാനം അല്ലെ ഒരു ജോലി ജോലി നമുക്കിപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ഒരു നല്ലൊരു നല്ലൊരു ഒരു മാന്യമായൊരു ജോലിയും എന്ന് പറയാം അല്ലെങ്കിൽ എല്ലാ ജോലിയും മാന്യമാണ് എന്നാലും നമ്മളാഗ്രഹിക്കുന്ന ഒരു വലിയ ഒരു പൊസിഷൻല് എത്തണമെങ്കിൽ അതിന് വിദ്യാഭ്യാസം തന്നെ വേണം എല്ലാ ജോലിക്കലത് പറഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്നൊരു വലിയ ഒരു പൊസിഷൻ എത്തണമെങ്കിൽ നല്ലൊരു ജോലി തന്നെ വേണം അല്ലാണ്ട് നമുക്കിപ്പം പൈസക്കാണെങ്കിൽ ഏത് നമുക്ക് പഠിക്കേണ്ട ഒരു കാര്യമില്ല ഇപ്പം എന്നാ പറയുന്നത് എന്നാ പൈസ കിട്ടാനാണെങ്കിൽ ഒരു എന്നാ പറയുന്നത് ഒരു ഒരു കുറച്ച് ലോൺ എടുത്തിട്ടാണെങ്കിലും ഇപ്പം നല്ലൊരു സ്ഥലത്ത് ഒരു റിസോർട്ടോ അല്ലെങ്കിൽ കുറച്ച് പ്രീമിയം കാർ കളക്ഷന് എവിടുന്നെങ്കിലും ഒക്കെ ഫിറ്റ് ചെയ്ത് അത് റെൻറ്റിനു കൊടുത്താൽ തന്നെ നല്ലൊരു എമൗണ്ട് മാസം ഒരു ദിവസം തന്നെ കിട്ടും ഒരു ദിവസം തന്നെ ആണേലും ഒരു പന്ത്രണ്ടായിരം രൂപയെങ്കിലും കിട്ടും അങ്ങനെത്തെ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽത്തന്നെ നമുക്ക് ജീവിക്കാനുള്ളതായി അപ്പം അതിലുപരി ഇപ്പോൾ ഒരു ഐ എ എസ്സോ ഇപ്പോൾ ഐ പി എസോ അങ്ങനെയൊക്കെ നോക്കണെങ്കിൽ അല്ലേ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം വലിയ നിലയിലെത്തണമെങ്കിൽ ബെറ്റർ ലൈഫ് ഉണ്ടാവണമെങ്കിൽ എഡൂക്കേഷൻ തന്നെവേണം പിന്നെ അതിനൊക്കെ ഉപരി ഒരു നിലയിലെത്തുന്നതിനുപരി അല്ലേൽ ഒരു എന്താ പറയുന്നത് ഒരു ഒരു തിരിച്ചറിവുണ്ടാവുക അത് ഇപ്പം ഒരു പൈസയ്ക്കുപരി ഒരു തിരിച്ചറിവ് അല്ലെ ലൈഫില് കാര്യങ്ങളെ മനസ്സിലാക്കണമെങ്കിൽ അതിനെ ഒരു മാന്യമായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാവണമെങ്കിൽ തന്നെ ഒരു എഡ്യൂക്കേഷൻ എജ്യൂക്കേഷൻ ഇല്ലെങ്കിൽ പറ്റില്ല പിന്നെ എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ആൾ എഡ്യൂക്കേഷൻ ജസ്റ്റ് ഒരു ഇതല്ല അതിനെന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ ഇടയ്ക്ക് ആൾക്കാരായിട്ട് ഇടപെടുന്നുണ്ട് എങ്ങനെ ആൾക്കാരുമായിട്ട് ഇടപഴകണം അതൊക്കെ ഇത് പഠിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പം നമ്മളൊരു ഒരു കമ്മ്യൂണിറ്റിയുടെ മുമ്പിൽ എന്നാണ് നമ്മള് ഒരു ഒരു കമ്മ്യൂണിറ്റിയാണ് നമ്മളെ പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയുമ്പം നമ്മളൊരു കമ്മ്യൂണിറ്റീടെ കൂടെ ഇരിക്കുമ്പോൾ അവരുടെ സ്വഭാവം അവരുടെ ഇതാ അതിൽ നല്ലതും ചീത്തയും ഉണ്ട് പിന്നെ അതുപോലെ അവരുടെ ഒരു എന്നാ പറയുന്നത് അങ്ങനെ നല്ലൊരു കമ്മ്യൂണിറ്റിടെ കൂടെ തന്നെയായിരിക്കും ഒരുമാതിരി നല്ല ഒരു എജ്യൂക്കേഷൻ കിട്ടിയ ഒരാളെ താമസിക്കുക അപ്പം അയാൾക്കും അതേപോലെ ഉള്ള നല്ല കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പം അതേപോലെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളെന്ന് പറയുമ്പോൾ അയാൾക്ക് അത് അങ്ങനൊരു സംഭവം അയാളുടെ ലൈഫിൽ ഉണ്ടാവത്തേയില്ല

വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ നമുക്ക് എന്ന് പറയുമ്പം കുറച്ച് ഇപ്പോൾ ഒരു എക്സാമ്പിള് പറയാനാണെങ്കിൽ ഇപ്പം ഇപ്പം ഒരാളുടെ ഒരാളിപ്പം നമ്മളോട്ട് കാര്യം ഇപ്പോൾ ഒന്നും വേണ്ട ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം നമ്മളോടൊരു കാര്യം കൺവീൻ ചെയ്യണം അയാളൊരു വേറൊരു നമുക്കറിയാവുന്നൊരു നമുക്കറിയാത്തൊരു ലാംഗ്വേജുള്ള ഒരാളാണ് ഇപ്പം ആ ലാംഗ്വേജിലൊരു കാര്യം ഇപ്പ അയാൾ പറയുന്ന കാര്യം നമുക്ക് ഏറ്റവും അത്യാവശ്യുള്ളൊരു കാര്യമാവും പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ അയാളുടെ ലാംഗ്വേജ് നമുക്കറിയത്തില്ല ഏ അങ്ങനെ അറിയാത്തൊരു സിറ്റുവേഷന് നമുക്ക് അയാളോട്ട് സംസാരിക്കാൻ പറ്റത്തില്ല ഇപ്പം അതിന് നമ്മൾ ഈ ഇപ്പോൾ ഒരു ലാംഗ്വേജ് എജ്യൂക്കേഷൻ ഉണ്ടായാൽ മാത്രമേ നമുക്ക് അങ്ങനെ സംസാരിക്കാനും ഇടപെടാനും പറ്റത്തുള്ളൂ